സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് പുതിയ വൈദ്യുതി ബന്ധം കിട്ടുന്നത് എന്നതിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരു പുതിയ വൈദ്യുതി ബന്ധം ആവശ്യമാകുന്നത് നാം ഒരു പുതിയ വീട് എടുക്കുമ്പോഴുള്ള നമ്മുടെ ഒരു നമുക്ക് വൈദ്യുതികളിലേക്ക് ആവശ്യം ആകുമ്പോഴാണ് നമുക്ക് ഒരു പുതിയ വൈദ്യുതി ബന്ധം ആവശ്യമാകുന്നത് അപ്പം സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വൈദ്യുതി ബന്ധം ഉണ്ടാകുന്ന കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പുതിയ ഇതു തന്നെ വൈദ്യുതി ബന്ധം നാം അതിന് അതിന് അപ്ലിക്കേഷൻ നൽകുക ഒരു നമ്മുടെ വീട് എടുത്ത് നാം എല്ലാം റെഡിയായി നമ്മുടെ വീട് വീട്ടിലേക്ക് കറണ്ട് വരും എന്നുള്ള രീതിയിൽ നാം അതിനുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്ത് റെഡി ആയി ആ രീതിയിലായി കഴിഞ്ഞതിന് ശേഷം നാം സർക്കാർ കെ എസ് ഇ ബി ഓഫീസിലേക്ക് പോയി അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസർക്ക് നാം ഒരു അപേക്ഷ നൽകേണ്ടതുണ്ട് ആ ഒരു അപേക്ഷ നൽകി കൊണ്ട് നാം നാം പറയുക എന്ത് എൻ്റെ ഈ സ്ഥലത്ത് ഈ സമയത്ത് ഈ സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റന്നുള്ള എൻ്റെ വീടിന് സർക്കാരിന്റെതായ എന്ത് വൈദ്യുതി ബന്ധം ആവശ്യം ഉണ്ട് അവിടെ ഇപ്പോൾ വൈദ്യുതി ഇല്ല എന്നുള്ള എന്നുള്ളത് പറയുക അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞവർക്ക് അപേക്ഷ നൽകി നാം അതിനുള്ള ഫണ്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫണ്ടുകളും മറച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം വൈദ്യുതി ബന്ധം ഇതിനുള്ള അപേക്ഷ നൽകണം അതായത് സ്വാഭാവികമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാം അതിന്റെ അപ്രൂവൽ ലെറ്റർ നിങ്ങൾ പറയുന്ന അപേക്ഷയിൽ തള്ളിയാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ വീട് വന്ന് നോക്കും അതിൻ്റെ പരിശോധനകളെല്ലാം ഉണ്ടാകും നാം പറയുന്നത് സത്യമാണ് ഇത്ര സ്ക്വയർ ഫീറ്റിലാണോ അല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിലേക്ക് വൈദ്യുതി പോകാനുള്ള ഇഷ്യുകൾ എല്ലാം ഉണ്ടാകുമോ അങ്ങനെയുള്ള രീതിയിൽ സർവ് നടത്താൻ വേണ്ടി സർക്കാർക്ക് ഓഫീസ് ഓഫീസർമാർ വരുന്നു അങ്ങനെയാണ് അതിലേക്ക് കാര്യങ്ങൾ എല്ലാം റെഡി ആക്കുകയും അവർ തന്നെ ചെയ്യുന്നു അങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് പുതിയ വൈദ്യുതി ലഭിക്കുന്നത് അത് ഇതിനെ ഈ സമയത്തോളം നാം ആ വൈദ്യുതി അപ്പുറത്തെ വീട്ടിൽ നിന്ന് വലിച്ചിട്ടും എല്ലാം ധാരാളം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം അപ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു ഭാഗമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് കർഷകർ അഭിമുഖീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പ്രശ്നം ധാരാളം പ്രശ്നങ്ങൾ വൈദ്യുതി വിച്ഛേദിച്ചതുമായി കർഷകർ അഭിമുഖീകരിക്കുന്നു അഭിമുഖീകരിക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കർഷകർ എന്നുള്ളത് അവർ അവരുടെ അധിക തൊഴിലുകളും വൈദ്യുതിയുമായി ബന്ധപ്പെട്ടായിരിക്കും കാരണം അവരുടെ ട്രാക്ടറാവട്ടെ അല്ലെങ്കിൽ അവരുടെ ധാരാളം കാര്യങ്ങൾ വൈദ്യുതി ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് പറയാറുള്ളത് എങ്കിലും അധികം വൈദ്യുതിയുമായി ബന്ധപ്പെട്ടല്ലല്ലോ കാരണം അവർക്ക് എന്താ അറിയാവുന്നത് ധാരാളം സാധനങ്ങൾ വൈദ്യുതിയിലൂടെ എല്ലാം മറിച്ച് ഈ ഫ്യുവൽ അതായത് എണ്ണകളിലൂടെ കാരണം അവരുടെ ട്രാക്ടറാണ് കർഷകർക്ക് ആവശ്യമായുള്ളത് ട്രാക്ടറാണ് ട്രാക്ടറൽ എണ്ണ നിറച്ചാൽ മതി എന്നെങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറുകളാണ് അതിലും എണ്ണ അടിച്ചാൽ മതി അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ആണിപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് അതിപ്പോഴുള്ള കർഷകർക്ക് മോട്ടറുകളിൽ എന്തുണ്ട് വൈദ്യുതി കണക്ഷനുണ്ട് അപ്പോൾ അപ്പോൾ വലിയ പ്രശ്നമില്ല കാരണം ഇൻവേർട്ടർ പോലെയുള്ള സംവിധാനം ഉണ്ടായത് കൊണ്ട് പ്രശ്നം ആകും എന്നാലും അവർ അവർക്ക് അതില്ലാത്തൊരു പാവങ്ങളെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിലൂടെ വെള്ളം നനക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും അങ്ങനെ അതിൻ്റെ എല്ലാം വാടി പോകുന്ന ധാരാളം അവസ്ഥകൾ നാം കാണുന്നുണ്ട്